ആ ഹാ ഹാ ഹാ നമുക്ക് ആ ആ ചന്ദനം നമുക്ക് സ്റ്റോക്കുണ്ട് നമുക്ക് ലൈസൻസൊക്കെ ഉള്ളതാണ് ആ അല്ല ആ ഈ മരപ്പണി ചെയ്യുന്നവര് നമുക്ക് ചന്ദനം തരുമ്പോള് കാർപെൻ്റർക്ക് ലൈസൻസ് വേണമെന്നുണ്ട് അപ്പോള് ലൈസൻസുള്ള ആൾക്കാർക്കേ നമുക്കിത് കൊടുക്കാന് പറ്റുകയുള്ളു

ആ പുതുക്കുകയും ചെയ്തതാണ് ആ അങ്ങനെയാണേ കുഴപ്പമില്ല പുതുക്കിയ സർട്ടിഫിക്കറ്റിന്റെയൊരു ബില്ലടയ്ക്കാന് നേരത്ത് അതിൻ്റെയൊരു കോപ്പി നമുക്കു തരണം ആ ആ ആ അപ്പോള് കുഴപ്പമില്ല നമുക്ക് അതിന്റെയൊരു കോപ്പിയും കൂടെ ഇതിൻ്റെ ബില്ലിൻ്റെ നമ്മുടെ പൈസയടക്കാന് നേരത്തത്തിൻ്റെ ഒരു കോപ്പി കൂടെ നമുക്കു തരണം ഇന്നു തന്നെ നമുക്ക് ബില്ല്

ആ ആ ആ ആ ആ നമുക്ക് ക്യൂബിക്കടിയിലാണ് പിന്നെ തൂക്കത്തിലുമാണ് വരുന്നത് ക്യൂബിക്കടിക്ക് അളന്നെടുക്കുക അതിൻ്റെ തൂക്കത്തിലാണ് ചന്ദനത്തിനു വില

ആ ഉരുപ്പടികളാക്കി വച്ചേക്കുന്നതാണ് ആ ആ മ്മ് നമുക്കത് നമുക്ക് കിലോയ്ക്ക് തൂക്കമാണു വില നമ്മൾക്ക് നമുക്കാവശ്യമുള്ള സാധനം അളന്നെടുക്കുന്നു അതിനു തൂക്കത്തിനാണു നമുക്കു വില ആ അത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചു വില അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കും ആ ക്വാളിറ്റി അനുസരിച്ച് ആ വില വരികയില്ല നല്ല പൂർണ്ണമായ കാതല് മാത്രമാണ് പിന്നെ വെള്ള വെള്ള കൂടുതലുള്ളതാണെങ്കിൽ അതിനനുസരിച്ചു വില കുറയും ആ അത് ക്വാളിറ്റി വന്ന് നമുക്ക് ഏതാണ് വേണ്ടതെന്നു നമുക്ക് കാണാം നമുക്കിവിടെ വരുകയാണെങ്കിൽ നമുക്കിത് കാണാനുള്ള സൗകര്യമൊക്കെയുണ്ട് ആ വന്നു കണ്ടു നമുക്കു സാധനം ഇഷ്ടപ്പെടുമ്പോള് ആ നമ്മളക്കെ മറയൂരുനിന്നു നമ്മള് സർക്കാരിൻ്റെ ലേലം പിടിച്ചെടുക്കുന്ന സാധനമാണ് ആ എന്നിട്ട് നമ്മള് ആ നമുക്ക് നമ്മള് പീസാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് മറ്റേ ഇത് വരുന്ന പരുവത്തിലുണ്ട് നമുക്കതിപ്പോള് അങ്ങനെ വേണമെങ്കിൽ അതും അങ്ങനെങ്കിലും തരാം ആ ഉരുളാനാ ഉരുളൻ ഉരുളൻ തടിയായിട്ടും നിങ്ങള്ക്കതു തരും

ഇപ്പോള് തടിയുടെ കച്ചവടം മാത്രമേ ഉള്ളു നമുക്ക് നമ്മളങ്ങനെ ആ നമ്മുടെയൊരു വേറൊരു ഫ്രാഞ്ചൈസിയുണ്ട് അവര് ചെയ്യുന്നുണ്ടിങ്ങടുത്ത്

ആ അതു വേണമെങ്കില് നമുക്ക് വണ്ടിക്കെത്തിച്ചു തരാം ഈ ഇതു കൊണ്ടു പോകുമ്പോള് നമ്മുടെ വണ്ടിയാകുമ്പോള് പ്രശ്നമില്ലാതെ പോകാം നമുക്ക് ലൈസൻസുള്ളതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടെയ്യാനും നമ്മുടെ വണ്ടിയിൽ വിട്ടുതരാം ആ നമ്മുടെ വണ്ടിയത് ചെയ്യുകയാണങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാന് പറ്റും നിങ്ങളുടെ വണ്ടിയെ പോകുകയാണെങ്കില് പോയാല് ചിലപ്പോള് പോകുന്ന വഴിക്കെന്തങ്കിലും തടസ്സമോ പോലീസ് ചെക്കിങ്ങോ വല്ലതും ഉണ്ടായാൽ അപ്പോഴിതെല്ലം കാണിക്കേണ്ടിവരും നമ്മളുടെ വണ്ടിക്കങ്ങു കൊണ്ടുപോവുകയാണെങ്കില് നമക്കിതിൻ്റെ ലൈസെൻസുള്ളതായതു കൊണ്ട് ഇവിടുള്ളവർക്കും അറിയാവുന്നതായതുകൊണ്ടു നമ്മുടെ വണ്ടിയേൽ പോകാമായിരിക്കും അതുപോരാ അപ്പോഴാ സാധനത്തിൻ്റെ പേയ്മെൻ്റ് നമുക്കിവിടെ ചെയ്യണം ചെയ്താലേ നമ്മളിവിടെനിന്നു വണ്ടി വിടുകയുള്ളു വണ്ടിക്കൂലി അവടെ വരുമ്പോള് കൊടുത്താലും മതി ആ ആ ബില്ലെഴുതി പോരണം ഇത് നമ്മള് ഇപ്പോള് ജി എസ് ടി അടിച്ച ബില്ലടിക്കുന്നതാണ് അപ്പോള് നമുക്ക് പൈസയടച്ച് ആണെങ്കില് മാത്രമേ ഇത് ജി എസ് ടി അടിച്ച് ബില്ലടിച്ച് ക്ലിയര് ചെയ്തേ നമുക്കു പോകാന് പറ്റു

ആ രാവിലെ വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ടു പോരെ ആ പോരുന്നതിന് മുമ്പൊന്നു വിളിച്ചാല് മതി ഞാൻ സ്റ്റോക്കുണ്ട് ഷോപ്പ് രാവിലെ തുറക്കും ഒന്പതു മണിയൊക്കെ ആകുമ്പോത്തേനും തുറക്കും

ആ രാവിലെ വിളിച്ചിട്ടു വന്നേരെ ആ ആ ഓക്കെ താങ്ക്യൂ ഓക്കെ താങ്ക്യൂ